പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പം ടൂറിസം വകുപ്പ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ടൂറിസം ഈ ഏരിയ ആയിട്ട് തോന്നീട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ നാട്ടിൽത്തന്നെ ഇപ്പം പാലക്കയം തട്ട് അതൊക്കെ പ്രാദേശിക ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെയുള്ള ചില പ്രാദേശിക ബിസിനസുകളുടെ വളർച്ചേനെ ആ പാലക്കയം തട്ട് എന്നുള്ള ടൂറിസം മേഖല ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ഒരു ഒരു മലമ്പ്രദേശം പോലെയുള്ളൊരു സ്ഥലമായിരുന്നു അത് അവിടെ ഉള്ള ചെറിയ ചെറിയ ബിസ്നസുകളെല്ലാം ആ ഒരു ടൂറിസം മേഖല ഉയർന്ന് വന്നതോടു കൂടിയാണ് അവിടെ ജനങ്ങൾ പോകാനും അവരുടെ ബിസ്സിനസ്സുകളെല്ലാം ഉയരാനും സഹായിച്ചിട്ടുള്ളത് പിന്ന അങ്ങനെ കുറേ ഉൾനാടുകളിൽ ഉള്ള ഒരുപാട് പ്രാദേശികമായിട്ടുള്ള ബിസിനസ്സുകളെല്ലാം ഉൾനാടുകളിലെല്ലാമാണ് കൂടുതൽ പ്രാദേ ടൂറിസത്തിൻ്റെ ഒരു ഭംഗി നമുക്കാസ്വദിക്കാൻ കഴിയുന്ന അവിടെയാണ് ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള ടൂറിസത്തിനെ ബിസിനസ്സിനെ ഒരുപാട് ഈ ടൂറിസം സഹായിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്